പണ്ട് കാലത്ത് നമ്മള് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നത് കയറും പാളയും ഒക്കെ ഉപയോഗിച്ചായിരുന്നു അതിന് ശേഷം നമ്മള് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനായിട്ട് തോട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങി വീണ്ടും നമ്മള് മോട്ടറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോട്ടറുപയോഗിക്കുമ്പോൾ ഉള്ള എളുപ്പവഴി എന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങള് നമുക്കതിന്റ് അകത്ത് നിന്ന് എളുപ്പം എളുപ്പം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഒത്തിരി കായിക അധ്വാനം കുറവുണ്ട് ഒരു സ്വിച്ച് അമർത്തിയാല് നമുക്ക് വെള്ളം കിട്ടും നമുക്ക് സമയം ഒത്തിരി ലാഭം ഉണ്ട് ആർക്ക് വേണേലും നമുക്ക് ഇതു ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കില് നമ്മള് എന്നാ ഇച്ചിരെ പ്രായമായവരൊക്കെ ആണെങ്കില് അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കാണേലും വെള്ളത്തിൻ്റെ ആവശ്യം വന്ന് കഴിഞ്ഞാല് കിണറ്റിൽ നിന്ന് വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു പക്ഷെ മോട്ടറ് വന്നതോടുകൂടി ആർക്ക് വേണേലും ഒരു സ്വിച്ചമർത്തിയൽ മതി എറ്റപ് എത്ര ക്ഷീണിത ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പറ്റില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും നമുക്ക് വെള്ള വെള്ളം നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ മോട്ടറ് വന്നതോടുകൂടി നമുക്ക് അതിൻ്റെ ഒരു നമുക്കത്രയും ഉപകാരമായിട്ടുണ്ട് പിന്നീട് നമുക്ക് അതുപോലെതന്നെ എത്ര വേണമെങ്കിലും വെള്ളം കോരി ഉപയോഗിക്കുമ്പം നമുക്ക് കുറച്ച് വെള്ളമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് അങ്ങനുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഒത്തിരി കോരി ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ മോട്ടറ് വന്നതോടുകൂടി നമുക്ക് കൃഷിയിടങ്ങളെല്ലാം നമുക്ക് നനയ്ക്കാൻ പറ്റുന്നുണ്ട് നല്ല കാർഷികമായുള്ള അഭിവൃദ്ധിക്ക് ഇത് ഒത്തിരി സഹായകമാകുന്നുണ്ട് അതുപോലെ വീടുകളൊക്കെ ആണേലും ടോയിലെറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതക്കെയാണ് നമ്മള് ഈ വ് മോട്ടറ് വന്നതോടുകൂടിയാണ് എല്ലായിടത്തും മൊ എത്ര മുകളിലേക്കാണെങ്കിലും നമുക്ക് മോട്ടറ് വന്നതോടുകൂടി നമുക്ക് വെള്ളം നമുക്ക് പമ്പ് ചെയ്ത് കയറ്റാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അതുകൊണ്ട് നമുക്ക് ഒരു എത്ര ഹൈറ്റിലുള്ള വീടാണെങ്കിലും എത്ര നിലയിലുള്ള വീടാണേലും അതിൻ്റെ മുകളിൽ വരെ നമുക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇല്ലെങ്കില് വെള്ളം കോരി ഉപയോഗിക്കുന്ന സമയത്തിതൊന്നും നമുക്ക് സാധ്യമാകുമായിരുന്നില്ല പിന്നീട് അതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തേക്കും ഒരേ സ്ഥല ഒരേ അളവില് ഒരേ സ്ഥലത്ത് നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റും അതുപോലെ പ് വെള്ളം ഇല്ലാത്ത പ്രദേശങ്ങളിലാണേലും നമുക്ക് വലിയൊരു കുളവോ എന്തേലും ഉണ്ടെങ്കിൽ അവിടെ നിന്നും മോട്ടറ് വന്ന് മോട്ടറിനടിച്ച് കേറ്റി ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒക്കെ ഇലക്ട്രിക് മോട്ടറ് വന്നത് കൊണ്ടാണ് നമുക്കത് ഉപയോഗപ്രദമാകുന്നത് വെള്ളവില്ലാത്ത സ്ഥലങ്ങളില് മോട്ടറടിച്ച് നമുക്ക് വണ്ടിക്കാണേലും വെള്ളം എത്തിക്കാം എന്തോരും വെള്ളം വേണേലും നമുക്ക് മണിക്കൂറ്കള് വേണേലും വെള്ളം അടിക്കാനുള്ള ഒരു സംവിധാനം ഇലക്ട്രിക് മോട്ടറ് വന്നതോടുകൂടി നമുക്ക് സാധ്യമാകുന്നുണ്ട് പണ്ട് കാലത്ത് ഇതൊന്നും സാധ്യമാകും സാധ്യമല്ലായിരുന്നു നമുക്ക് വെള്ളം നമുക്ക് പഴ് പരിമിതമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നുള്ളു അതുപോലെതന്നെ വളരെയേറെ കായിക അധ്വാനവും ഇതിന് ആവശ്യമായിരുന്നു പക്ഷെ ഇന്നൊരു സ്വിച്ചിൻ്റെ സ്വിച്ച് അമർത്തിയാൽ മതി നമുക്ക് എന്തോരം വെള്ളം വേണേലും എത്ര മണിക്കൂറ് വേണേലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും